യാത്ര ചെയ്തങ്ങാണ്ട് പോകാൻ ഒരുപാട് സ്ഥലം നമുക്ക് ഇഷ്ടമാണ് കാരണം എനിക്ക് ഇപ്പോള് വയനാട് പോയത് നല്ല രസമാണ് കാരണം അവിടെ നല്ല യാത്രകള് അതേപോലെ തന്നെ സ്ഥലങ്ങള് തണുപ്പ് കാറ്റ് ആ ഭാഗങ്ങളൊക്കെ ഇഷ്ടമാണ് ഒന്നാമത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റണ സ്ഥലമാണ് പിന്നെ ഊട്ടി കൊടൈക്കനാൽ ആ ഭാഗത്തൊക്കെ ഇഷ്ടമാണ് പിന്നെ കടലിലേക്ക് പോകാൻ ഇഷ്ടമാണ് കടലില് പോയിക്കഴിഞ്ഞാല് നമുക്ക് അറിയാം അവിടെ എത്ര ചൂടുണ്ടേലും വെയിലുണ്ടേലും നമുക്ക് അതറിയില്ല അതിൻ്റെ ചൂടോ ആ ഒരു ഇതൊന്നും നമുക്ക് മുഖത്ത് അറിയില്ല അവടെ തണുപ്പും ആ കടലിന്റെ അതൊക്കെ കണ്ടു കഴിഞ്ഞാല് നമ്മള് കടലിലിറങ്ങി എത്രേ തിരമാലേന്റൊപ്പം പോയാലൊന്നും നമുക്ക് ആ ഒരു ടെൻഷൻ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് യാത്രകളെന്നു പറയുന്നത് ഒരു രസമാണല്ലോ അപ്പോള് കടലിലൊക്കെ പോയിക്കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ രൂപത്തില് എനിക്ക് ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇപ്പോള് അടുത്ത് ഞാൻ പോയത് എറണാകുളത്തേക്കു പോയിട്ടുണ്ട് ട്രെയിനിങ്ങിൻറ്റെ ഭാഗമായിട്ട് പോയതാണെങ്കിലും അവിടെ വലിയ വലിയ വലിയ വി ഐ പികള് വി വി ഐ പികളൊക്കെ വരുന്ന സ്ഥലമായോണ്ടെന്നെ നമ്മളെ പോലെ ഒരാള്ക്ക് അവിടെ പോയിട്ട് നല്ല ആസ്വദിച്ചാൻ പറ്റി അവിടെ ഞങ്ങള് രണ്ടു ദിവസമാണ് നിന്നത് രണ്ട് പകലും ഒരു രാത്രിയും അപ്പോള് റൂമും കാര്യങ്ങളും അതുപോലെ തന്നെ

നമ്മള് ഒരിക്കലും ജീവിതത്തിൽ ജന്മത്തില് പോവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല പക്ഷേ നല്ല രസമുളള സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടത്തെ ഫുഡുകള് നല്ല അടിപൊളി ഫുഡാണ് ഏതു രൂപത്തില് എന്താണ് നമ്മള് ആഗ്രഹിക്കണത്ച്ചാല് ആ അപ്പോള് അത് നല്ല അടിച്ചുപൊളിച്ചിട്ട് തന്നെ ഞങ്ങൾ പോയ അന്ന് ഞങ്ങള് മുതലാക്കി പക്ഷെ എനിക്ക് പോവാണെന്നുണ്ടെങ്കില് ഇനിയും മക്കളെ കൂടെ മക്കളെ കൂടെ അവിടെ പോയിട്ട് ഒരു ദിവസം നിക്കണമെന്നുണ്ട് പിന്നെ ലുലു മാളില് കൂടെയൊക്കെ പോയി പിന്നെ ട്രെയിനിൽ കയറി അങ്ങനെ കുറച്ചു ദൂരം പോയി അവിടുന്നന്നെ മറ്റെ നമ്മള് സാധാരണ ഇവിടുന്ന് ട്രെയിനിനു പോണ മാതിരിയല്ല ദൂരെ പോയിട്ട് അവിടുന്ന് ട്രെയിനിന് പോകാന്ന് പറേന്നെ ഒരു രസുളള കാര്യമാ പിന്നെ വണ്ടർലേയിലേക്കു പോണേ ഇഷ്ടമാണ് വണ്ടർലേലൊക്കെ പോയിക്കഴിഞ്ഞാല് അവിടെ വെള്ളമാണല്ലോ കൂടുതലും ഇപ്പോള് പല രീതിയിലും ഇങ്ങനെ സ്പീഡായിട്ട് പോകനാവിടെ പല പലേ റൈഡറൊക്കെ ഉണ്ടല്ലോ അപ്പോള് എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്കു പിന്നെ കൂടുതലും എനിക്കു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇഷ്ടം പിന്നെ മൂന്നാറിലേക്കു പോകണത് ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ദൂരേക്ക് എന്താ പറയുക ചുരമൊക്കെ കയറിപ്പോയിട്ട് ആ ഭാഗങ്ങളിലൊക്കെ വയനാട് അതുപോലെ തന്നെ പലേ ഭാഗങ്ങള് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്